ഞാനൊരു ഹെഡ്സെറ്റ് വാങ്ങിയാരുന്നു ആ ഹെഡ്സെറ്റിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട് സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നും ക്ലിയർ ആവുന്നില്ല ബാസ്സോ കാര്യങ്ങളോ ഒന്നും നോർമലി കിട്ടുന്നില്ല ഭയങ്കര ഒരു ബിൽഡ് ക്വാളിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു പ്രോഡക്റ്റ് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ ബ്ലാസ്റ് ചെയ്കയാണ് പക്കാ ബ്ലാസ്റ്റിംഗാണ് അതു പെട്ടന്ന് പൊട്ടി പോകുന്നുണ്ട് അതുപോലെതന്നെ സൗണ്ട് ക്ലോക് ക്ലാരിറ്റി ആണെങ്കിൽ തന്നെ സൗണ്ടില് ഭയങ്കരമായി നോയ്സ് കാര്യങ്ങളൊക്കെ പെട്ടന്ന് വരുന്നുണ്ട് ഒരു പതറിച്ച കാര്യങ്ങള് ക്ലിയർ ആകുന്നില്ല വോയിസ് കാര്യങ്ങള് ഹെഡ്സെറ്റിൻ്റെ സൗണ്ട് സിസ്റ്റം തന്നെ ഭയങ്കര ഫെയിലിയറാണ് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഭയങ്കര മോശം ആണ് ബാസ്സ് കാര്യങ്ങള് ഒന്നും വരുന്നില്ല ചില സമയത്ത് സൗണ്ട് കേക്കുന്നില്ല നോയിസ് കാര്യങ്ങളാണ് പ്രോഡക്ട് റ്റോട്ടലി ഒരു വേസ്റ്റെന്ന് തന്നെ പറയണ്ട അവസ്ഥയാണ്